ഹലോ ആ എടാ ഞാനാണ് ആ നമുക്ക് ബത്തേരിയിലിപ്പം ഒരു വിൽട്ടൺ എന്ന് പറയുന്ന ഹോ റസ്റ്റോറൻറ് വരുന്നില്ലെ ആ അത് തന്നെ അവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ട് അല്ല നമ്മളിപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം നമുക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ഫുഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് എങ്ങനെയുണ്ട് എന്ന് അറിയത്തില്ലല്ലോ പുതിയൊരു ഹോട്ടൽ ആയതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഒക്കെ യാ സ്റ്റാർ പ്രോപ്പർട്ടി ആണല്ലേ ഓക്കേ എങ്ങനെയാണ് ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട് അവിടുത്തെ ഓക്കേ ഓക്കേ ആൾമോസ്റ്റ് ഗുഡ് നല്ലതാണല്ലെ നമുക്കിങ്ങനെ കഴിക്കാൻ ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റിയൊരു സ്ഥലം ആണോ അത് ഓക്കേ ഓക്കേ അപ്പോൾ ഫുഡിന്റെ റേറ്റിംഗ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് വിളിച്ചത് ഓക്കേ വിട്ടിട്ടുണ്ടല്ലെ ഓക്കേ അപ്പോൾ ഞാൻ അത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിന്നെ വിളിച്ചു നോക്കിയതാണ് അപ്പോൾ നീ അവിടെ പോയിരുന്നോ ആ പോയിരുന്നു അല്ലെ ഓക്കേ ഓക്കേ ഫുഡ് ഒക്കെ അത്യാവശ്യം നല്ല ഫുഡ് തന്നെയാണ് ആ ഓക്കേ ഓക്കേ എടാ ആഹ് ആ അ ഓക്കേ ആ ഫാമിലിനെയും കൊണ്ടൊക്കെ പോകാൻ പറ്റിയതാണ് ഓക്കേ ഓക്കേ ഡാ ഞാൻ എന്തായാലും അവിടെ പോയി നോക്കാം എന്നാൽ താങ്ക്യൂ താങ്ക്യൂ